കളികളെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കാലത്ത് കളികൾ എന്തോ രസമായിരുന്നു പിന്നെ കണ്ണുപൊത്തി കളി പിന്നെ കിളികളെ വയലിൽ കിളികളെ അടിക്കാൻ പോകുന്നു കോലി കളിക്കുന്നു പിന്നെ അക്കുത്തി കളി കത്താന വരുമ്പോൾ കല്ലേ കുത്ത് കരിങ്കുത്ത് അങ്ങനത്തെ കളി പിന്നെ സാറ്റ് സാറ്റ് കളിക്കുന്നു പിന്നെ എന്താണ് ഒളി അതേപോലെ തന്നെ ഓട്ടം ചാട്ടം എല്ലാം ഇന്നത്തെ ഇന്നത്തെ തലമുറയാണെങ്കിൽ ഫോണും വച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് പരസ്പരം നമ്മൾ ആ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ആരോഗ്യം ഉണ്ടായിരുന്നു ചാടിയും ഓടിയും കളിച്ചും ഓടിയും കളിക്കുമ്പോൾ തന്നെ നല്ല ഒരു എനർജി ആയിരുന്നു ബുദ്ധിപരമായിട്ട് ആയാലും ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുമ്പോൾ തന്നെ കൂട്ടുകാർ തമ്മിൽ അടിയും പിടിയും കളിയും ഒരു ഒരു നല്ല രസമുള്ള കാലമായിരുന്നു പിന്നെ കളികൾ ഒക്കെയായിരുന്നു ഇന്നത്തെ തലം പറയുകയാണെങ്കിൽ ഫോണും വച്ചുകൊണ്ട് ആരു ആരുമായിട്ടില്ല അവർ മുറിക്ക് അകത്ത് കയറി ഇരുന്നു ഫോണും തോണ്ടി തോണ്ടിയിരിക്കുന്നു അവർ പിള്ളേർ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല പരസ്പരം മിണ്ടുന്നില്ല കളിക്കുന്നില്ല ഒന്നുമില്ല ഞങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു രസമുള്ള കളികളൊക്കെ ആയിരുന്നു ആരോഗ്യപരമായിട്ടും കാലും കൈയ്യുമൊക്കെ ആയാലും അങ്ങ് ചാടിയും മറിഞ്ഞും ഫുട്ബോള് കളിക്കാനും സാറ്റ് കളിക്കാനും പിന്നെ പന്ത് കളിക്കാനും അതേപോലെ പിന്നെ ഇട്ടിട്ട് കണ്ണു പൊത്തി പിന്ന ഇട്ട് പിന്ന് കണ്ടു പിടിക്കാനും ഒക്കെയള്ള ഒരു നല്ല കളിയായിരുന്നു പക്ഷെ അന്നത്തെ തലമുറ നല്ല ബുദ്ധിയും ഉണ്ടായിരുന്നു ഓർമ്മ ശക്തി നിൽക്കുമായിരുന്നു കളിക്കുകയും ഓടുകയും ചാടുകയും മറിയുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ തലമുറക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല അവർ കളിക്കാറേ ഇല്ല എന്ന് വേണം പറയാൻ ഫോണും തോണ്ടി തോണ്ടി ഒരു മുറിയിൽ കയറിയിരിക്കുക ഞങ്ങളുടെ കാലം എൻ്റെ കാലമൊക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു ഞങ്ങൾ ഒളിച്ചു കളിക്കുക സ്കൂളിലായാലും സാറ്റ് കളിക്കുക കസേരക്കളി പിന്നെ ഇൻ്റർവല്ലിൻ്റെ സമയം ആവുമ്പോഴത്തേക്കും ഓടും കളിക്കാനായിട്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഉച്ച സമയത്തായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അക്കുത്തിത്താന വരുമ്പത്ത് എന്ന് കല്ലേ കുത്ത് കരിങ്കുത്ത് എന്നു പറഞ്ഞ അത് ഒരു കളി പിന്നെ എന്താണ് വേറെ ഉണ്ടല്ലോ കളികൾ ആ പന്ത് കളിക്കുന്നത് പിന്നെല്ല അങ്ങനെ എല്ലാം കളികൾ കളികൾ കളിക്കുന്ന ഊഞ്ഞാൽ ഓണമൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഊഞ്ഞാലിൻ്റെ പിറകെ നടക്കുക ഇന്നത്തെയൊക്കെ തലമുറ ഊഞ്ഞാലും ഇല്ല ഒന്നുമില്ല